കുഞ്ഞിലെ തൊട്ടൊക്കെ ചെറുതായിട്ടൊക്ക വരക്കുമായിരുന്നു അല്ലാതെ വലിയ വരക്കാരി ഒന്നുമല്ല എന്നാലും അത്യാവശ്യം പറ്റുന്ന രീതിയിൽ നോക്കി നോക്കിയൊക്കെ പിക്ചേഴ്സൊക്ക നോക്കി വരക്കുന്നതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം അങ്ങനെ നോക്കി നോക്കിയൊക്കെ വരയ്ക്കുമായിരുന്നു അല്ലാത്ത പക്ഷം താൽപര്യം വരയിലെ താൽപ്പര്യം ഉണ്ടാവാനുള്ള കാരണമെന്ന് പറയാൻ പ്രത്യേകിച്ചു ഒരു ഇതില്ല വരക്കുമോ എന്നു ചോദിച്ചാൽ വരയ്ക്കും വരയ്ക്കാൻ കിട്ടുന്ന അവസരങ്ങളൊന്നും കളയുന്നില്ല അതാണ് മെയിനായിട്ടുള്ള ഒരു കാര്യം പിന്നെ എനിക്ക് ഇച്ചിരിടേയും വരകളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കലാകാരൻ ഡാ വിഞ്ചി ഒക്കെയാണ് അതുപോലെ മൈക്കൽആഞ്ചലോ അങ്ങനെ തുടങ്ങിയ ആളുകളുടെ ചിത്രങ്ങൾ തന്നെയാണ് പിന്നെ അല്ലാതെ രാജാ രവിവർമ്മയുടെയൊക്കെ ചിത്രങ്ങളൊക്കെ ഇഷ്ടമാണ് പക്ഷെ അല്ലാത്ത പക്ഷേ ഇപ്പം അടുത്തുള്ള അടുത്ത കാലഘട്ടങ്ങളിലൊന്നും അങ്ങനത്തെ ചിത്രങ്ങൾ വരയ്ക്കുന്ന ആൾക്കാരെയോ അങ്ങനെയൊന്നും ഞാൻ കണ്ടിട്ടില്ല പിന്നെ എൻ്റെ ചേച്ചിയൊക്കെ നന്നായിട്ട് വരയ്ക്കും അതൊക്കെ എനിക്ക് ഇഷ്ടമാണ് അങ്ങനെ അല്ലാതെ പ്രത്യേകിച്ചു വരയോട് സ്നേഹമുണ്ടോ എന്നു ചോദിച്ചാൽ അങ്ങനെ ഒരു സ്നേഹം ഇല്ല വരക്കുമോ എന്നു ചോദിച്ചാൽ വരയ്ക്കും എന്നുള്ള രീതിക്ക് മാത്രമേയുള്ളൂ അതിനപ്പുറത്തേക്ക് അങ്ങനെ ചിന്തിച്ചിട്ടില്ല ചെയ്തിട്ടുമില്ല